ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ഏതായിരുന്നു എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക കൂടുതലും ഇംഗ്ലീഷ് മലയാളം അങ്ങനത്തെ തന്നെ ആയിരുന്നു കാരണം നമുക്കൊന്നും മനസ്സിലാകില്ലെങ്കിലും ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നത് ഭയങ്കര സംഭവമാണ് കാരണം ഇംഗ്ലീഷെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം നമുക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞേപ്പിന്നെയാണ് നമുക്ക് അതിനെ പറ്റി മനസ്സിലാകാൻ തുടങ്ങിയത് അപ്പം ഇംഗ്ലീഷ് മീഡിയത്തമ്ല് പഠിച്ചിട്ടൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ഒരു കിണ്ടിയും അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ച് പിന്നെപ്പിന്നെയാണ് നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് വന്നത് എന്നാലും കൂടുതലും എനിക്കിഷ്ടം മലയാളം തന്നെ ആയിരുന്നു മലയാളം ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും മനസ്സിലാവുകയെങ്കിലും ചെയ്യുമായിരുന്നു പിന്നെ മലയാളം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറെയൊക്കെ നമ്മളെ വലിയ കാര്യമായിരുന്നു അതുകൊണ്ടുത്തന്നെ എന്താ പറയുക മലയാളം ക്ലാസ്സിൽ ഇരിക്കാനൊക്കെയായിരുന്നു എനിക്ക് കൂടുതലും താത്പര്യം ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു കാരണം എല്ലാവർക്കും നമ്മളെ ഒരു വലിയ കാര്യമായിരുന്നു കാരണം എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നെ ഒരു എന്താ പറയുക എന്നെ ഒരു കുഞ്ഞുകുട്ടിയെ കാണുന്ന പോലെയൊക്കെയായിരുന്നു എപ്പോഴും സ്കൂളിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നേ അപ്പോൾ എല്ലാവർക്കും നമ്മളോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് എല്ലാ സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും സബ്ജക്റ്റും എല്ലാം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഇഷ്ടം തന്നെ ആയിരുന്നു